അപ്പം നമുക്ക് ഒരു ഗെയിമിൽ ഭേദഗതി വരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളായിട്ട് സ്വന്തമായിട്ട് ഒരു കളിയുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഏന്തെങ്കിലുമൊക്കെ ഭേദഗതി വരുത്താറുണ്ട് ഇപ്പം ഞങ്ങൾ സ്വന്തമായിട്ട് ക്രിക്കറ്റ് കളിക്കുകയൊക്കെ ആണെങ്കിൽ നമ്മൾ അതായത് ഇപ്പം നമുക്ക് വലിയ സ്ഥലങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത സമയമാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും അതായത് കാട്ടിൽ ഒക്കെ അടിച്ച് കളഞ്ഞാൽ നമ്മൾ ഔട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട് അപ്പം നമ്മൾ അതിൽ നിന്നൊരു ഭേദഗതിയും കാര്യങ്ങളൊക്കെ വരു വരുത്താറുണ്ട് ഇപ്പം നമ്മൾ പ്രൊഫഷണലായിട്ട് കളിക്കുന്ന ആൾക്കാരല്ലല്ലോ അപ്പം നമുക്ക് അങ്ങനത്തെ ഭേദഗതിയും കാര്യങ്ങളൊക്കെ വരുത്താൻ വേണ്ടി സാധിക്കും ഇതിപ്പം ഒരു ഓവർ ബോ അതായത് ഒരു ഓവറിൽ മാത്രം നമുക്ക് കളിക്കാവുന്ന കളികളൊക്കെ ആക്കും പിന്നെ നാല് ഓവർ കളിക്കാൻ വേണ്ടിയാക്കും അങ്ങനെ പല രീതിയിലുള്ള വ്യത്യാസവും കാര്യങ്ങളൊക്കെ വരുത്താറുണ്ട് പിന്നെ ഇപ്പോൾ ഒരാൾക്ക് വേണ്ടി ബാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാ വരുത്താറുണ്ട് ഇപ്പം സാധാരണ എല്ലാ കളികളിലും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അതായത് രണ്ട് പേര് രണ്ട് സൈഡിൽ നിന്നാൽ മാത്രമേ ബാറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ പക്ഷെ നമ്മൾ ഭേദഗതിയൊക്കെ വരുത്തിയിട്ട് ഒരാൾക്ക് മാത്രം ബേറ്റ് ചെയ്യാൻ പാകത്തിന് ആക്കികൊടുക്കും പിന്നെ ഫുട് ബോളിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താറുണ്ട് ഇപ്പം ഒരു കുറച്ച് ആൾക്കാർ നമ്മളിപ്പം അഞ്ചോ ആറോ പേരെ ഉണ്ടാകുള്ളുവെങ്കിലും നമ്മൾ ആ സൈഡ് മാത്രം കളിക്കും നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് കളിക്കാതെ കുറച്ച് ഭാഗം മാത്രം നമ്മൾ ചെറുതാക്കിയിട്ട് ഗ്രൗണ്ട് ചെറുതാക്കിയിട്ട് കളിക്കാറുണ്ട് അങ്ങനെ പല രീതിയിലുള്ള ഭേദഗതിയും നമ്മൾ വരുത്താറുണ്ട്